ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് സദ്യയാണ് അത് ഇനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരിക്കലും വെറുക്കാത്തൊരു ഭക്ഷണമാണ് സദ്യ എന്ന് പറയുന്നത് അതിന് പ്രധാന കാരണം എന്തെന്ന് വച്ചാൽ എനിക്ക് അതിലുള്ള അവിയല് സാമ്പാറ് ഉപ്പേരി അതായത് തോരൻ പിന്നെ പപ്പടം പിന്നെ പായസം എനിക്ക് ഭയങ്കര അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഭക്ഷണം എനിക്കില്ല അപ്പോള് അതിൻ്റെ ഓരോ കൂട്ടുകളും പിന്നെ അതിൻ്റെ രുചികരമായിട്ടുള്ള സാമ്പാറിന്റൊക്കെ രുചി എന്ന് പറയുന്നത് എനിക്ക് അത്രത്തോളം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അത് പോലെതന്നെ ഇപ്പോള് അവിയലില് ചെറിയ പുളിയും പിന്നെ അതിൻ്റെ ഓരോ ഓരോ പച്ചക്കറി യുടെയൊക്കെ ടേസ്റ്റ് വളരെ രസകരമാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് രസം കഴിക്കുന്നത് ഭയങ്കരിഷ്ടാട്ടോ സാമ്പാറിൻ്റെ അതായത് ഈ സദ്യയുടെ കൂടെ പിന്നെ അതിലുള്ള തോരനുകൾ പിന്നെ എരിശ്ശേരി പുളിശേരി അതിന്റൊക്കെയൊരു ടേസ്റ്റ് അതിന്റെയൊക്കെയൊരു രുചി എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് അത്രത്തോളം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്കീ പ്രഭാത ഭക്ഷണത്തിന് കഴിക്കാനിഷ്ടമുള്ളത് ചപ്പാത്തിയും അതുപോലെ പനീർ ബട്ടർ മസാലയും അതിൻ്റെ കൂടെ തന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്തതും കഴിക്കുക അതായത് പൊരിച്ചതും കൂടി കഴിക്കാന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താണെന്ന് അറിയൂല കാരണം എനിക്കും ഈ ഒരു രണ്ട് തരം ഫുഡ് അതായത് സദ്യ അത് പോലെ തന്നെ പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും പിന്നെ ഈ കോളിഫ്ലവർ പൊരിച്ചതും അപ്പോള് ഈ ഒരു ഭക്ഷണം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വെറുക്കാത്തൊരു ഭക്ഷണമാണ് എനിക്ക് അത് ചെറുപ്പം മുതലെ ഇതാ ഇന്ന് വരെ എനിക്ക് ആ ഭക്ഷണത്തിനോട് വെറുപ്പോ മടുപ്പോ തോന്നിയിട്ടില്ല ഇനിയും ഒരുപാട് ഒരുപാട് ഈ സദ്യ കഴിക്കണം അതേപോലെ പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും കഴിക്കണം എന്നുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് ഇപ്പോഴും